ആ ഹലോ സൂസൻ ചേച്ചിയാണോ എന്താണ് വിശേഷം കടയിലാണോ ഇപ്പോള് ഞാന് ഇത്തിരി അരി വാങ്ങിക്കണമായിരുന്നു അതിന് ഏതൊക്കെ അരികളാണുള്ളതെന്ന് ചോദിക്കാനായിട്ടാണ് വിളിച്ചത്

ആ എനിക്ക് ബിരിയാണിയരിയുടെ വിലയൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാന് വിളിച്ചത് അയ്യോ അതിത്തിരി കൂടുതലല്ലേ ഹമ് ആ എനിക്കിത്തിരി കൂടുതല് വേണമായിരുന്നു

അതെയോ എത്രവരെ കുറയും

കിലോയ്ക്ക് വീട്ടിലെത്തിച്ചുതരാൻ പറ്റുമോ വീട്ടിലെത്തിച്ചുതരാൻ പറ്റുമോ അതുതന്നെ അപ്പോള് എൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞ് ആരുടെ കയ്യിലാണ് കൊടുത്തുവിടുന്നതെന്ന് അറിഞ്ഞിട്ട് അവരോട് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞുകൊടുക്കാം ഹമ് അല്ലെങ്കിൽ ഞാൻ റൂട്ട് അവരുടെ ഫോണിൽ ഇട്ടുകൊടുക്കാം

ആ അപ്പോള് പിന്നെ വേറെ എന്തൊക്കെ അരിയാണുള്ളത്

ബസുമതി അരിയുണ്ടോ ബസുമതി അരിയുണ്ടോ ബസുമതി അപ്പോള് അരി എല്ലാത്തരം അരികളുമുണ്ടല്ലേ അതെ അല്ലേ ഇത് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നതാണോ ഹോൾസെയിലായിട്ടാണോ ചെയ്യുന്നത് അതുതന്നെ അപ്പം ചെറുതായിട്ട് ആവശ്യമുള്ളവർക്കും കൊടുക്കുമല്ലേ ഷോപ്പിൽ ഒത്തിരി ജോലിക്കാരുണ്ടോ ചേച്ചിയുടെ ഷോപ്പിൽ ഒത്തിരി ജോലിക്കാരുണ്ടോയെന്ന് ആ നന്നായിട്ട് പോകുന്നു അല്ലേ ഹമ് അപ്പോള് ഞാന് എനിക്ക് വേറെയും കുറെ അരികള് വേണം ഞാനും അരിയുടെ ചെറിയൊരു കച്ചവടം നടത്തുകയും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ ആദ്യമേ ഞാൻ ഇങ്ങനെ കുറച്ച് എടുത്ത് ഒന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്നോർത്താണ് കുഴപ്പമില്ലല്ലോ ആ ഹമ് ഇവിടുത്തെ ജോലിക്കാരൊക്കെ നല്ല ജോലിക്കാരാണോ

ഹമ് ഇത് ഒരു കുടിൽ വ്യവസായമായിട്ട് തുടങ്ങിയതാണോ അതുതന്നെ അപ്പോള് സ്വന്തമായിട്ട് വാഹനമൊക്കെയുണ്ടല്ലേ സാധനങ്ങള് കൊണ്ടുപോയി കൊടുക്കാൻ സ്വന്തമായിട്ട് ഈ സാധനങ്ങള് വീടുകളിൽ എത്തിച്ചുകൊടുക്കുവാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വാഹനവും ഡ്രൈവറുമൊക്കെയുണ്ടോ എല്ലാ സൗകര്യങ്ങളുമുണ്ടല്ലേ ആ ആ ആ ആ എനിക്കിങ്ങനെ ചെറുതായിട്ട് തുടങ്ങി ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാന് വിളിച്ചത് ആദ്യം ഇത് വാങ്ങി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വേണ്ടേ നമുക്കിത് നല്ലതാണെന്ന് പറയാന്

ആയിക്കോട്ടെ ആ നമ്മള് സ്ത്രീകളല്ലേ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് നന്നായിട്ട് ചെയ്തുപോകാം ഹമ് ആ ആ എന്നാല് ഞാൻ വരുന്നതിനനുസരിച്ച് വിളിക്കാം കേട്ടോ ആ അപ്പോളെനിക്ക് ഞാന് വിളിക്കുമ്പോള് അതനുസരിച്ച് എനിക്ക് സാധനമൊന്ന് എത്തിച്ചുതന്നാല് മതി ഞാൻ വഴിയൊക്കെ പറഞ്ഞുതരാം കേട്ടോ ആ എന്നാല് വെച്ചോട്ടെ എന്നാല് ശരി ആയിക്കോട്ടെ ആ ഓക്കെ താങ്ക് യൂ